ഇന്ത്യൻ സിനിമകളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും പറയാനാണെങ്കിൽ ഞാൻ കൂടുതലും കാണാറ് സീരിയലുകളാണ് അങ്ങനെ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും കാണും കാരണെന്തെന്നുവച്ചിട്ടുണ്ടെന്നാൽ നമുക്ക് മൗനരാഗം കാണും സാന്ത്വനം കാണും കുടുംബവിളക്ക് കാണും പിന്നെ എനിക്ക് ഇതിലേറ്റവും ഇഷ്ടമുള്ള സീരിയൽ സ്വാന്തനമാണ് ഇപ്പോൾ സ്വാന്തനത്തിൽ ഇപ്പോൾ മിനിഞ്ഞാന്നാണ് അതിൻ്റെ അമ്മ മരിച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊരു ദുഃഖം സംഭവിച്ചപോലെതന്നെയാണ് അതൊക്കെ കാണുമ്പോൾ കരണമെന്തെന്നുവച്ചാൽ നമ്മൾ ദിവസം കാണുന്നൊരു പരിപാടിയാണല്ലോ അപ്പം അതിലെനിക്കേറ്റവുമിഷ്ടം അഞ്ജലിനെയാണ് അഞ്ജലി ഭയങ്കര ക്യൂട്ട് ആണ് കാണാനും വർത്താനം അഞ്ജലിയും ശിവനും ഭയങ്കരിഷ്ട്ടാണ് പിന്നിപ്പം മൗനരാഗത്തിനെക്കുറിച്ചു പറയാണെങ്കിൽ എനിക്ക് മൗനരാഗത്തിൽ പിന്നെ എല്ലാവരെയും ഇഷ്ട്ടാണ് മൗനരാഗം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് പിന്നെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഗാനങ്ങൾ പിന്നെ സിനിമകൾ ഞാനങ്ങനെ കാണൽ വളരെ കുറവാണ് പിന്നെ കാണുന്നുണ്ടെങ്കിൽ തീയേറ്ററിൽ പോയിട്ട് കാണും തീയേറ്ററിൽ പോയിട്ടൊക്കെയാണ് കാണാറ് ലാസ്റ്റായിട്ട് കണ്ട സിനിമ ആർ ഡി എക്സ് ആണ് അത്യാവശ്യം നല്ല സിനിമയാണ് അതിലെ മൂന്നുപേരെയും എനിക്കിഷ്ടമാണ് പിന്നെ ഗാനങ്ങളെക്കുറിച്ചു പറയാനാണെങ്കിൽ എനിക്കിപ്പം കിംഗ് ഓഫ് കൊത്തയിലെ കലാപക്കാര അത് ഭയങ്കര ഇഷ്ടാണ്